ഞങ്ങളുടെ പ്രദേശത്ത് ലഭിക്കുന്ന പത്രങ്ങൾ മനോരമ മാതൃഭൂമി മംഗളം തുടങ്ങിയ വർത്തമാന പത്രങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് ഇതിൽ ഞങ്ങൾ വരിക്കാരായിട്ടുള്ളത് മനോരമയാണ് അത് ചെറുപ്പം മുതൽ ആ മനോരമയുടെ പേജും ആ അതിന്റെ റിപ്പോട്ടിങ്ങുമൊക്കെ നമുക്ക് വളരെയധികം ഇഷ്ടമാണ് അതുകൊണ്ടത് വായിക്കാൻ വളരെയധികം ഇഷ്ടമാണ് അതുകൊണ്ടാണതിന്റെ വരിക്കാരായത് ഒരു ദിവസം ആ മനോരമ മാറി മാതൃഭൂമിയോ മംഗളമോ മറ്റു പത്രങ്ങളോ വീഴുമ്പോൾ നമുക്ക് അതിനോടൊരു വിയോജിപ്പുണ്ട് കാരണം അത് നിരന്തരം നമ്മളത് നമ്മളുടെ കൺമുന്നിലൂടെ ആ വാർത്തകൾ വായിക്കുന്നതിന്റെ മനോഹാരിത ലഭിച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് മനോരമയിലൂടെയാണ് പലർക്കും പല ഇഷ്ടങ്ങളാണ് ചിലർ മാധ്യമങ്ങൾ വായിക്കാറുണ്ട് ചിലർ മംഗളം വായിക്കാറുണ്ട് മാതൃഭൂമി വായിക്കാറുണ്ട് അതൊക്കെ അവരവരുടെ സ്വാതന്ത്ര്യവും അവരവരുടെയിഷ്ടവുമാണ് അതുപോലെ അതിലെ പ്രിയപ്പെട്ട കോളമെന്ന് പറയുന്നത് നമ്മൾ പത്രം കിട്ടിയാൽ ആദ്യം നോക്കുന്ന കോളം ഫ്രെണ്ട് പേജ് നോക്കും അതിന് ശേഷം പിന്നെ സ്പോട്ട്സിന്റെ കോളത്തിലേക്ക് പോകും അതൊരു സ്പോട്ട്സ് പ്രേമി ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ ഓരോരുത്തരും അവരവരുടെ അഭിരുചിക്കനുസൃതമായിട്ടുള്ള കോളത്തിലേക്കാണ് നമ്മളാദ്യം ശ്രെദ്ധയെ കൊണ്ടുപോണത് ഇതാണ് എന്റെ പത്രം